ഹലോ ഇത് ഹോട്ടൽ ഹിൽ പാലസ് അല്ലേ ഞാൻ നന്ദന ഇവിടെ സ്ഥലം മങ്ങാട്ടുകരയാണ് ഞാനിപ്പോൾ നാലുദിവസം മുമ്പ് ഒരു ഫുഡ് ഓഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് ക്യാൻസല് ചെയ്യേണ്ടി വന്നു എനിക്ക് കാരണം ഓർഡറ് വൈകും എന്ന് പറഞ്ഞത് കാരണം ഞാൻ പിന്നെ അത് ക്യാൻസല് ചെയ്തു ഓൺലൈൻ പെയ്മെൻറ്റെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇതുവരെയായിട്ടും റീഫണ്ട് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഒരാഴ്ചത്തോളം ആയി അപ്പം ഇതുവരെ റീഫണ്ട് ഒന്നും കിട്ടിയിട്ടില്ല കുറെയായി വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ ഇതുവരെ എനിക്ക് അതിനുള്ള റിപ്ലേ ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ നിങ്ങളുടെ സ്ഥിരം കസ്റ്റമർ ആണ് എപ്പോഴും നിങ്ങളുടെ അടുത്തു നിന്നാണ് ഫുഡ് ഓർഡറ് ചെയ്യാറുള്ളത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാൻസൽ ചെയ്തിട്ട് റീഫണ്ട് കിട്ടാണ്ടിരിക്കുന്നത് റിപ്ലേ ഒന്നും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ റിപ്ലേ തരികയായിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു